ആ വരൂ വരൂ ഇരിക്കു ഇരിക്കു ആ ഗുഡ് മോണിംഗ് ഗുഡ് മോണിംഗ് എന്താണ് ആവശ്യം എന്താണ്

അതു ശരി ഏതു ക്ലാസ്സിലേക്കാണ് അതു ശരി ഇല്ലേ ആൺകുട്ടിയാരാണ് ആൺകുട്ടി പെൺകുട്ടി അങ്ങനെ

ഓ ശരി ശരി ഇപ്പോൾ അവിടെ അഡ്മിഷൻ പ്രോസസ്സ് ഏകദേശം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വേണമെന്നു വച്ചാൽ ഒരു അഡ്മിഷൻ ഫോം ഞങ്ങൾ തരാം ആ ഫോമ് ഫില്ല് ചെയ്തിട്ട് അടുത്താഴ്ച വന്നു കഴിഞ്ഞാൽ ഒരു ഫൈവ് തൗസൻ്റ് റുപ്പീസ് തന്ന് രണ്ട് പേർക്കും രണ്ട് പേർക്കും വരുമ്പം ടെൻ തൗസൻ്റ് റുപ്പീസാവും ഡെപ്പോസിറ്റ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഡോണേഷനായിട്ടല്ല തരേണ്ടത് നമ്മൾ സാധാരണ ഇവിടെ നടത്താറുള്ള ഒരു ഡോണേഷനാണ് നമ്മുക്കിത് കോഷൻ ഡെപ്പോസിറ്റായിട്ടാണ് നമ്മൾ മാറ്റാറ് നമുക്ക് കുട്ടി പഠിച്ച് കഴിഞ്ഞ ഉടനെ നിങ്ങൾ പോകുന്ന സമയത്ത് ടി സി മേടിക്കുമ്പോൾ ഞങ്ങൾ തിരിച്ചു തരുന്നതാണ്

ക്ലാസ്സിൻ്റെ ഫീസ് എന്നു പറയുമ്പോൾ ഒരു ഇപ്പോൾ യു കെ ജി പഠിക്കുന്ന കുട്ടിക്ക് മൂന്ന് മാസം വരുമ്പോൾ ഒരു ആറായിരത്തി അഞ്ഞൂറ് രൂപ വരും പക്ഷെ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഒരു മൂന്ന് മാസം വരുമ്പോൾ ഏകദേശം ഒരു എണ്ണായിരത്തിനടുത്ത് വരും എണ്ണായിരത്തി തൊള്ളായിരം വരും മൂന്ന് മാസം മൂന്ന് മാസം നമ്മുടെ ഫീസിൻ്റെ സ്ട്രക്ച്ചറ് വരുന്നത് ആദ്യത്തെ മാസം മാത്രമേ ഉള്ളു ഈ എണ്ണായിരം പിന്നെ ആറായിരത്തഞ്ഞൂറും വരണത് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരം രണ്ടായിരം കിഴിവുണ്ട് അതായത് ആദ്യത്തെ മൂന്ന് മാസം ആറായിരത്തഞ്ഞൂറും പിന്നെ എണ്ണായിരത്തിത്തൊള്ളായിരം അടുത്ത മൂന്ന് മാസം വരുമ്പോൾ രണ്ടായിരം രൂപ കിഴിവ് വരും അപ്പോൾ നാലായിരത്തഞ്ഞൂറും ആറായിരത്തിത്തൊള്ളായിരം വരും അതേയതേയതേ ഇവിടെ അങ്ങനെയാണ് ഇവിടെ കുട്ടിക്ക് മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് കുറയ്ക്കും അല്ലെങ്കിൽ കുട്ടി പഠിക്കുന്നില്ല കുട്ടിയുടെ അക്കാഡമിക്സ് കമ്മിയാണെങ്കിൽ നമുക്ക് ചിലപ്പം കുട്ടുണ്ടാവും ഫീസ് കുട്ടി നന്നായി പഠിക്കില്ലേ അതു ശെരി ആ ഹാ ഹാ നിങ്ങളപ്പോൾ അയ്യായിരം രൂപ അടച്ചാൽ അടുത്ത അടുത്താഴ്ച വരികയാണെങ്കിൽ നമുക്ക് ഫോമും തരാം അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് പോയിട്ട് ബുക്ക്സ് വാങ്ങാം അതേപോലെത്തന്നെ യൂണിഫോമും വാങ്ങാം യൂണിഫോമും നിർബന്ധമാണ് അതെയതെ യൂണിഫോമൊക്കെ ആ ഫീസിൽതന്നെ ഇൻക്ലൂഡഡാണ് ആ അതൊക്കെ അത് ഐ ഡി നമുക്ക് ഇപ്പോൾ കിട്ടില്ല കാരണം എന്നു വച്ചാൽ കുട്ടിയുടെ ഡീറ്റെയിൽസൊന്നും നമുക്കറിയില്ലലോ അപ്പോൾ ക്ലാസ്സൊക്കെ തുടങ്ങി ഞങ്ങൾ മെല്ലെ ഫോളോഅപ്പ് ചെയ്തുകൊളളാം

ബുക്ക്സ് നമ്മൾക്ക് അടുത്തത് അടുത്താഴ്ച തന്നെ തരാം അടുത്താഴ്ചതന്നെ തരാം നമുക്കിവിടെ തന്നെ പ്രൊവൈഡറാണ് നമ്മുടെ ആ അതെയതേയതേ ടൈം ടൈമ് എന്നു പറയുമ്പോൾ ഏകദേശം ഒമ്പതരത്തൊട്ട് നാലു മണിവരെയാണ് നമ്മൾ ക്ലാസ്സ് വരുന്നത് ഒമ്പതരത്തൊട്ട് പത്തുമണിവരെ ഒരു പത്തരവരെയാണ് ഒരു ഫസ്റ്റ് അവറ് വരുന്നത് അതു കഴിഞ്ഞ് ഒരു പത്തു മിനിറ്റ് ബ്രേക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ പത്ത് നാല്പത് തൊട്ടിട്ട് പന്ത്രണ്ടര വരെയാണ് പിന്നെ അടുത്ത ക്ലാസ്സ് വരിക പിന്നെ ലഞ്ച് ബ്രേക്ക് അതുകഴിഞ്ഞ് അതേപോലെ തന്നെ ഒരു മണി തൊട്ടിട്ട് രണ്ടു മണിവരെ ക്ലാസ് പിന്നെ പത്തു മിനിറ്റ് ബ്രേക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നാലുമണി ആയിക്കഴിഞ്ഞാൽ വിടും ബസ്സൊക്കെ പ്രൊവൈഡഡാണ് നിങ്ങളുടെ വീടെവിടെയാണ് വരണത് ആ ആ റൂട്ടിലേക്ക് ബസ്സുണ്ട് കുഴപ്പമില്ല ആ ബസ്സ് റൂട്ടിലേക്ക് രണ്ട് ബസ്സുണ്ട് അല്ല അത് ഫ്രീയാണ് ഞങ്ങള് അങ്ങനെ പൈസ മേടിക്കാറില്ല ഫ്രീയാണ് ഫ്രീയാണ് ആ താങ്ക് യു താങ്ക് യു ഓക്കെ ശരി ഇനിയെന്തെങ്കിലും അറിയാനുണ്ടെന്നു വച്ചാൽ വിളിച്ചാൽമതി ഇനി ഞാൻ ഫോൺ നമ്പറ് തരാം ശരി ശരി